ഈ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ ഒരു ബഹുമതി തന്നെയാണ് കാരണം ഒരു നല്ലൊരു കഴിവുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂള്ളൂ ഈ ഡ്രോയിംഗ് ക്ലാസ് ഈ ഡ്രോയിംഗ് പഠിക്കുക എന്ന് ഒക്കെ പറഞ്ഞാൽ ലോകത്തിൽത്തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സില് കാണുന്നത് അത്പോലെ നമ്മൾ ഒരു പേപ്പറോ അല്ലെങ്കില് ഏതെങ്കിലും പ്രതലമോ അടയാളപ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കുകയാണ് അത് വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം എന്നെങ്കിലും ഞമ്മള് ഒരു കാര്യം നമ്മൾ മനസ്സില് കണ്ടത് അത് അതുപോലെ തന്നെ എഴുതി അത് അതുപോലെ തന്നെ വേറൊരു പ്രതലത്തിൽ നമ്മൾ വരയ്ക്കുമ്പോള് ഉണ്ടാവുക കിട്ടുന്നത് എന്ന് പറഞ്ഞാല് വളരെ വലിയൊരു കഴിവാണ് എല്ലാവര്ക്കും ആ കഴിവ് കിട്ടില്ല അതുപോലെ തന്നെ ശില്പശാലകളും അങ്ങനെ തന്നെയാണ് ഒരു ഏതെങ്കിലും വ്യക്തി കുറച്ച് വ്യക്തികള്ക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക കഴിവാണത് പലര്ക്കും പല വ്യക്തികള്ക്കും പല കഴിവുകള് ആയിരിക്കും ചില വ്യക്തികള്ക്ക് മാത്രം കിട്ടുന്ന കഴിവുകള് ആണിതൊക്കെ ഡ്രോയിംഗ് ക്ലാസ് എടുക്കുന്നത് നല്ല ഒരു അനുഭൂതിയാണ് കാരണം ഇത് പറഞ്ഞു മറ്റു പിള്ളേര്ക്കൊക്കെ പറഞ്ഞു മനസിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാല് നല്ലൊരു നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് തന്നെ വേറെ ഉള്ളവര്ക്ക് കാര്യം പറഞ്ഞു മനസിലാക്കി കൊടുക്കുമ്പോള് നമുക്ക് നമുക്കും കൂടുതല് കാര്യങ്ങള് പഠിക്കാന് വേണ്ടി വീണ്ടും തോന്നുകയും നമ്മൾ കൂടുതല് കാര്യങ്ങള് അറിവ് നേടുകയും നമ്മള് ചെയ്യുന്നു അതുപോലെത്തന്നെ പഠിക്കുന്ന കുട്ടികള്ക്ക് നല്ലൊരു ഉന്നതിയില് എത്താന് വേണ്ടി നമ്മൾ കഴിവതും ശ്രമിക്കുക ശ്രമിക്കുകയും ചെയ്യും